ഹെലോ ഹലോ ട്രിപ്പ് ഏജൻറ്റ് അല്ലേ ആ ഞാൻ ഒരു പോസ്റ്ററ് കണ്ടിട്ട് വിളിക്കുവാ അപ്പോൾ നമ്മൾ വയനാട്ടിലോട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാ പ്ലേസ് ഒന്ന് എവിടെയൊക്കെ പോകാൻ പറ്റിയത് ഒന്ന് നമ്മൾ ആ ടൈമാകുമ്പം പറയാം നമ്മൾ എപ്പം എന്താ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ടെമ്പിളായിട്ട് എന്താ ഉള്ളത് ടെമ്പിള് എവിടെയാ ഓ ആ നമുക്ക് എല്ലാം നിങ്ങളുതന്നെ നോക്കുമോ ഫുഡ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രിപ്പ്

ആ ആ ഓ അങ്ങനെ ആ

പിന്നെ നമ്മളെ കൂ നമ്മൾ എവിടെയൊക്കെയായിരുന്നു സ്ഥലം പിന്നെ വേറെ എവിടെയൊക്കെയുണ്ട് ഓ ആ ആ ആ ഇതെങ്ങനെയ നമുക്ക് ലൊക്കേഷൻ തന്നിട്ട് അങ്ങനെ പോവാനാണോ അതോ നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടാവുമോ ആ എന്നാൽ ഓക്കേ ആ ആ

പിന്നെ ആ ആ ഓക്കേ ആ ഒരു ടൈമാകുമ്പോൾ ഞാൻ ചെയ്യാം ഓക്കേ എന്നാൽ